എന്റെ വീട് കോഴിക്കോടാണ് ഞാന് പാലക്കാട് എന്റെ കൂട്ടുകാരുടെ കൂടെ എത്തിച്ചേര്ന്ന് അവിടെ നിന്ന് മൂന്നാര്ക്കൊരു ട്രിപ്പ് പോവാമെന്ന് വിചാരിക്കുകയാണ് ആ നേരത്ത് ഞാനൊൻപത് മണിക്കൊരു ക്യാബ് ബുക്ക് ചെയ്തു എന്നാലിപ്പം നേരം ഒൻപതേമുക്കാലായിട്ടുക്കോടെ ക്യാബ് ഇതുവരെ എത്തീട്ടില്ല ഇനി ഞാനവടേയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രെയിന് മിസ്സായിട്ടുണ്ടാവും എന്റെ കൂട്ടുകാരെല്ലാവരും പോയിട്ടുണ്ടാവും പിന്നെ ഞാന് ഒറ്റയ്ക്കാണ് പോവാന് തീരുമാൻച്ചെങ്കിൽ ഞാന് തിരിച്ച് വരാന് നല്ല ലേറ്റാവ്വേം ചെയ്യും എന്റെ വീട്ടുകാരെന്നെ വീട്ടിക്ക് കയറ്റുക പോലുമില്ല ഒറ്റയ്ക്ക് പിന്നവടം വരെ പോയിട്ട് ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടന്നെ എനിക്ക് ക്യാബ് വേണ്ട പറഞ്ഞനേരം ഞാന് ഉദേശിച്ച നേരത്ത് ക്യാബെത്താത്തതിനാല് ഞാനീ ട്രിപ്പ് പോവാന് ആഗ്രഹിക്കുന്നുമില്ല ഇത് നിങ്ങളുടെ ഭാഗത്തെ ഒരു വലിയ തെറ്റാണ് ഇനിതാവര്ത്തിക്കാണ്ടിരിക്കാന് വേണ്ടീട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളു ആദ്യമായിട്ടാണ് എനിക്കിത്രൊരു മോശം എക്സ്പീരിയന്സ് ഊബറിൻ്റെയ്ന്ന് ഉണ്ടാവുന്നത് ഇന്നേവരെ ഞാന് എങ്ങടേലും പോണമെന്ന് വിചാരിച്ചിട്ട് ഇത് ഇത്ര ലേറ്റായിട്ടില്ല ഒരു അഞ്ചോ പത്തോ മിൻറ്റോ ലേറ്റെന്ന് ലേറ്റാകുമെന്നല്ലാണ്ട് ഇതിപ്പം മുക്കാൽ മണിക്കൂറായിട്ടിവിടെ ക്യാബെത്തീട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളാരെ വിശ്വസിച്ചിട്ടാണ് ഇതക്കെ ബുക്ക് ചെയ്യ്ന്നത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങളിതക്കെ ബുക്ക് ചെയ്ണത് ഞങ്ങൾക്ക് ഇ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരണെങ്കിൽ കൃത്യമായിട്ടിവടെ എത്തിയിരിക്കണം അതിനുള്ള കാശാണ് ഞങ്ങൾ തരുന്നത് ആ ഒരു കറക്റ്റ് വേയ്റ്റിങ് ടൈമായാലും ഇപ്പോൾ അവിടേക്കുള്ള പോവാനുള്ള പൈസയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തരുന്നുണ്ട് എന്നാലെന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കൃത്യം സമയത്ത് എത്തിച്ചേര്ന്നോടാ ആ കൃത്യസമയത്തെത്തിച്ചേര്ന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട കാര്യം അവിടെ നടക്കാമ്പറ്റുള്ളു ഇനി എന്റെ കാലാകാലങ്ങളായിട്ടുള്ളൊരു മോഹമാണ് ഇവരുടെ കൂടെ ഒരു യാത്രക്ക് പോകാ എന്നുള്ളത് ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ കാരണം അതെല്ലാം പോയി ഇനി വേറെ എപ്പോഴെങ്കിലുമാവാമെന്ന് വിചാരിച്ചാല് എന്റെ വീട്ടിന്ന് വിടുപോലുമില്ല